ആ ഞങ്ങൾക്ക് ഫുഡ് പിന്നെ വലിയ വെറൈറ്റി ഫുഡൊന്നും ആക്കാനൊന്നും അറിയില്ല മോഡല് ഫുഡൊന്നും എനിക്ക് ആക്കാൻ അത്ര അറിയുമൊന്നുമില്ല ആ എങ്കിലും പിന്നെ ഒരു വിധം ഫുഡെല്ലാം ഞാൻ ആ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെല്ലാം പിന്നെ ഇപ്പോളത്തെ മോള് യു ട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ ഉള്ളതൊന്നും ഞാൻ പഠിച്ചെടുത്തിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഒര് സമുദായത്തിൻ്റെ ഒര് നല്ലൊര് കറി ഉണ്ട് ഏത് ഞങ്ങളുടെ സമുദായത്തിന് മാത്രം ഏകദേശം വേറെ ആർക്കും അങ്ങനെ ഉള്ള ഇതൊന്നുമില്ല ഞാൻ സമുദായത്തില് ഒരു എന്ത് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും ഒര് തോരക്കറി വയ്ക്കലുണ്ട് തോരക്കറി അപ്പം അത് തോരക്കറി വെക്കുന്നത് നല്ല തോരയും ആകണം നല്ല വെളുത്ത തോര വലിയ തോര ആകണം അതുപോലെ തന്നെ പിന്നെ ഇത് തേങ്ങ നല്ല ഉണക്ക തേങ്ങ ഉണക്ക അല്ലെങ്കിൽ ഇത് വെള്ളമുണ്ടേൽ ഉണക്ക തേങ്ങ ആണോ ആ തേങ്ങ പിന്നെ പിന്നെ ഞങ്ങൾ തീ കത്തിക്കോലോ അടുപ്പില് ചോറെല്ലാം വെക്കാൻ തീയെല്ലാം കത്തിക്കാമല്ലൊ അങ്ങനെ അടുപ്പില് നല്ല ഞെരുപ്പ് ഞെരുപ്പെന്ന് പറഞ്ഞാൽ കനല് ആകുന്നുണ്ടാവും നല്ല വിറക് കത്തിച്ച കനലില് ഈ തേങ്ങ ഞങ്ങൾ അതിനെ കമഴ്ത്തി വെക്കും ഈ കനലില് ഇടും ഇടുമ്പക്ക് അത് പിന്ന തീ കത്താൻ പാടില്ല കാരണം തീ കത്തിക്കഴിഞ്ഞെങ്കില് പിന്നത് കറുപ്പ് കളറ് വരും അത് കറുപ്പ് കളറ് വരാതെ അതിൻ്റെ ചുവപ്പ് കളറ് വരണം അങ്ങനെ ചുവപ്പ് കളറിലേക്ക് വരും അപ്പം ഞങ്ങൾ ഇങ്ങനെ നല്ല പ നല്ല രീതിയിൽ ഞെരുപ്പില് പിന്നെ ചുവപ്പ് കളറില് വരുന്ന ഒര് കുറച്ച് സമയം വയ്ക്കും ഏകദേശം ഒര് പത്ത് ഇരുപത് മിനിറ്റെല്ലാം വയ്ക്കുമ്പോൾ തന്നെ നല്ല കനലിൻ്റെ സ നല്ല കനലിൻ്റെതാകുമ്പോൾ കോരി ഒരു ഇരുപത് മിനിട്ടാകുമ്പം ഒക്കെ നല്ല ചുവപ്പ് കളറിലേക്ക് വന്നിട്ടുണ്ടാകും എന്നിട്ടത് എടുത്തിട്ട് മാറ്റി വെക്കും പിന്നെ ത് പിന്നെ ഞങ്ങൾ മുളക് അങ്ങനെ ബറ വറക്കും എണ്ണയിലിട്ടിട്ട് വറക്കും നല്ല എണ്ണ ഇട്ടിട്ട് വറത്തിട്ട് പിന്നെ അതു മാറ്റി വെക്കും അതുപോലെ തന്നെ കൊത്തമ്പര് നല്ല പോലെ വറക്കും നല്ല ചുവപ്പ് കളറ് ഒന്നും കറുത്ത് കൂട മുളാകയാലും കൊത്തമ്പരായാലും ഒന്നും കറുക്കാൻ പാടില്ല നല്ല ചുവപ്പ് കളറ് വവന്നപ്പം അതും മാറ്റി വെക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തോര അടുപ്പിൽ തന്നെ വേകാൻ വെക്കും വേകാൻ വെക്കുന്നതെന്ന് പറയുമ്പോൾ തോര ഞാൻ പറഞ്ഞത് പോലെ തന്നെ പിന്നെ വെള്ള തോര തന്നെ ആകണം നല്ല ടേസ്റ്റുണ്ടാവും വെള്ള തോര അത് പിന്നെ ഇത് ഇത് ക ഞങ്ങൾ കഴുകിയിട്ട് ആയതിന് ശേഷമില്ലേ വെളിച്ചെണ്ണ ബെളിച്ചെണ്ണ ഇട്ടിട്ടിങ്ങനെ ഇത് നല്ല കുഴച്ച് വെക്കും അല്ലേൽ അതിനെ മിക്സ് ആക്കും വെളിച്ചെണ്ണ മിക്സ് ആക്കും തോരക്ക് വെളിച്ചെണ്ണ മിക്സാക്കിയതിന് ശേഷം അടുപ്പില് വെക്കും അടുപ്പില് വെക്കുമ്പോൾ വെള്ളം വെക്കും ആദ്യം നല്ല പോലെ തീ കത്തിച്ചിട്ട് വെള്ളം വെക്കും വെള്ളം വെച്ചിട്ട് വെള്ളം നല്ല തിളയ്ക്കുന്ന സമയത്ത് പിന്നെ എന്താക്കും ഈ ഇത് വെളിച്ചെണ്ണ മിക്സാക്കിയ തോര ഞങ്ങൾ അതിലേക്കിടും ആ അതെല്ലെങ്കില് നല്ല തിളയ്ക്കുന്ന വെള്ളത്തില് തോര കഴുകിയിട്ട് അങ്ങനെ ഇടും അത് കഴിഞ്ഞിട്ടെന്താക്കും അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കുറച്ചു അത് ഇങ്ങനെ വെകുമ്പം തന്നെ നല്ല ടേസ്റ്റ്ണ്ടാവും വെകുമ്പം തന്നെ നല്ല ടേസ്റ്റുണ്ടാവും ഉപ്പിടാൻ പാടില്ല ഉപ്പ് പിന്നെ ഇട്ടോളും പിന്നെ ആദ്യം ഇങ്ങനെ കഴുകിയിട്ട് ആ പിന്നെ വേഗം വെക്കും അപ്പോൾ അത് എന്തായാലും തോര വേകാൻ ഒരു മണിക്കൂറ് വേണം കുക്കറെല്ലാം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ വെക്കാം പക്ഷേ അത് കുക്കറിലെല്ലാം വെക്കുമ്പം വലിയ ഇത് ടേസ്റ്റ് വരണമെന്നില്ല പക്ഷെ അടുപ്പില് വെക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ടാകും നല്ല വിറകെല്ലാം ആയിട്ട് ഉണ്ടെങ്കിൽ നല്ല ഞെരിപ്പ് ഉള്ള വിറകെല്ലാം ആയിട്ടുണ്ടെങ്കില് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് കിട്ടും അപ്പം അങ്ങനെ വേവിച്ചിട്ട് വേവിച്ചിട്ട് വെക്കണം പിന്നെ വെള്ളമൊന്നും കളഞ്ഞുകൂട തോരേൻ്റെ തോര വേവിച്ചതിൻ്റെ വെള്ളം അതിൽ തന്നെ വെക്കും ആ അപ്പോൾ അത് വെച്ചതിന് ശേഷം ഞങ്ങൾ ഇത് അരയ്ക്കുവല്ലോ അപ്പം തേങ്ങയും മുളകും കൊത്തമ്പരിയും കുറെ ഇങ്ങനെ വേറെ ഐറ്റമൊന്നും ഇടാനില്ല പിന്നെ മല്ലിയില അത് ഇത് ഒന്നും ഉപയോ ഉപയോഗിക്കാനില്ല പിന്നെ ഈ തോര വെന്തതിന് ശേഷം ഇത് അരച്ചിട്ട് ഞങ്ങൾ ഈ തോരക്ക് ചേർക്കും അപ്പം എങ്ങനേലും തേങ്ങാ മുളക് കൊത്തമ്പരി ഇത് അരച്ചിട്ട് നമ്മൾ തോരക്ക് ചേർക്കും കുറച്ച് പുളി ഒരു തോരേൻ്റെ അളവിലുള്ള പുളി മാത്രം പുളി ഒന്ന് അധികം ചേർക്കാനേ പാടില്ല ഇതിത്ര നാലേ നാലു ഐറ്റം തേങ്ങ മുളക് കൊത്തമ്പരി പുളി ഈ നാലേ നാല് ഐറ്റമാണ് അരയ്ക്കു അപ്പം നല്ല വൃത്തിയില് അരക്ക് അരയ്ക്കണമെന്ന് പറഞ്ഞെങ്കില് നൈസ് നൈസായിട്ട് ഒന്നും തേങ്ങ ഇങ്ങനെ ഒന്നും പീര പീര ഒന്നും കെട്ടിക്കൂട നല്ല നൈസായിട്ട് അരച്ചിട്ട് ഞങ്ങൾ ഈ കാ പിന്നെ തോര മിക്സീൻ്റെ ഇതിലേക്ക് കറക്കി ഒഴിച്ച് കൊടുക്കും എന്നിട്ട് പിന്നെ നീറോലി മുറിച്ചിട്ട് ഇടും അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം കറി വെക്കുമ്പോൾ നീരൊലിയെല്ലാം മുമ്പേ മുറിച്ചിട്ടിട്ടിങ്ങനെ വേവാൻ വെക്കുന്ന കുക്കറില് വെക്കുമ്പം എല്ലാം ഒന്നിച്ചിട്ട് വേവുന്നതിനായിട്ട് പക്ഷേ അത് ഞങ്ങൾ ആ തോരക്കറിക്ക് അങ്ങനെ വെച്ചെങ്കിൽ അതൊരു ടേസ്റ്റ് വരുന്നില്ല ഞങ്ങൾ എന്താക്കും എന്നാല് തിളയ്ക്കുമ്പോൾ ഈ അരച്ച സാധനം തോരയ്ക്ക് ഇട്ടിട്ട് അത് നല്ല പോലെ തിളക്കും അത് കുറച്ച് തിളക്കണം അല്ലെങ്കിൽ അത് ടേസ്റ്റണ്ടാവില്ല നല്ല പോലെ തിളച്ച് തെളച്ചിട്ട് നീരോലി ഈ അടുപ്പിൽ തന്നെ വേകണം വെന്തിട്ടാകുമ്പോൾ അത് അപ്പം തന്നെ പുറത്തേക്ക് തന്നെ മണം വെരും തോരൻ തോരക്കറീൻ്റെ മണം എന്നത് ഒര് ഒര് സ്പെഷ്യൽ ഒരു തോരക്കറീൻ്റെ മണം തന്നെ വരും എന്നിട്ട് തിള നല്ലപോലെ ഒര് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റു തന്നെ തിളക്കണം തിളക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റു തന്നെ അത് തിളക്കണം ആ തിളച്ചതിന് ശേഷം ഞങ്ങൾ എടുത്ത് വെക്കുവല്ലോ എന്നിട്ട് അതായതിന് ശേഷം എന്താക്കും പിന്നെ ഇനിയും ഇതാ എന്ത് വറത്തിടണമല്ലോ അപ്പോൾ നീരൊലിയും പിന്നെ വെളുത്തുള്ളിയും ജീരകവും ഇത് രണ്ട് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉള്ളി മുറിച്ച് വെക്കും പിന്നെ ഒര് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി തന്നെ കുറെ അല്ല ഒര് നാലോ അഞ്ചോ ഇതൾ പിന്നെ കുറച്ച് ജീരകം ഇതിങ്ങനെ ചതച്ചിട്ട് പിന്നെ ഞങ്ങൾ എണ്ണയില് നല്ലത് അതു അങ്ങനെ ചുവപ്പ് കളറ് കറുത്ത് കൂടാ ലൈറ്റ് തീയില് ഇങ്ങനെ വെച്ചിട്ട് അത് വറുത്തിടും ലൈറ്റ് തീയിൽ തന്നെ ആകണം അത് കുറച്ച് തീയധികമായി പോയങ്കില് പിന്നെ അത് കളറ് മാറും കളറ് മാറിയെങ്കില് അത് അതിൻ്റെ അതോര് മണം വ്യത്യാസമാകും ഇത് ചുവപ്പ് കളറ് വരണം എല്ലാം രണ്ടും നല്ല ചുവപ്പ് കളറില് ആകുന്നത് വരെ അതിനെ ഇങ്ങനെ എന്താ സ്പൂണില് അത് ഇളക്കിക്കോണ്ടിരിക്കണം ചുവപ്പ് കളറ് വന്നപ്പോൾ ഇതിനെ ഇങ്ങനെ വറുത്തിട്ടതിന് ശേഷം അടച്ച് വെക്കാം നല്ല അടപ്പ് അടച്ച് വെക്കാം അപ്പം തന്നെ അത് നല്ല എന്താ പറഞ്ഞെങ്കിൽ പുറമെ ആൾക്കാർക്കെല്ലാം അറിയും ഇത് തോരക്കറി ആണെന്ന് അത്രയും ഒര് നല്ല ക് നല്ല രസമുണ്ടാവും അതിൻ്റെ സ്മെൽ തന്നെ നല്ല രസമുണ്ടാകും പിന്നെ ഇത് നല്ല ചോറിന് കൂട്ടിയിട്ട് കഴിക്കുമ്പഴേക്ക് അയ്യോ എന്ത് ടേസ്റ്റ് ആ തോരയും പിന്നെ കുറെ ഇങ്ങനെ പിന്നെ വെള്ളമാക്കി കൂടാ കുറച്ച് കട്ടിക്ക് അത് ഞങ്ങൾക്ക് ചോറ് വേവിച്ച് ചോറ് തന്നെ കഴിച്ചില്ലെങ്കിലും കറിയായിട്ട് തന്നെ ഉപയോഗിക്കാം കറി തന്നെ കഴിക്കാനും നല്ല രസമുണ്ട് ഞങ്ങള് എല്ലാ ഫങ്ങ്ഷനിലും ഈ തോരക്കറീ എന്ന് പറയുന്നത് മെയിൻ അതിപ്പോൾ മറ്റ് ആൾക്കാരോടൊന്നും പറഞ്ഞ് ഞങ്ങളുടെ സമുദായത്തിൽ ഇവിടെ എല്ലാവർക്കും എകദേശം ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടാകും പക്ഷെ പുറമേത്തെ ഒരാളോട് ഇപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ഈ പാചകം പറഞ്ഞാലും അത്ര പെട്ടന്നൊന്നും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചെയ്യാനും പറ്റുന്നുണ്ടായാലും അത് എന്തായാലും വെറൈറ്റി ആയിപ്പോകും ഇപ്പോളത്തെ മോഡലിലേക്ക് എത്തിപ്പോവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തന്നെ ഞങ്ങളുടെ സമുദായക്കാർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇത് ഈ ഒര് രീതിയിലാണ് ഞങ്ങൾ ഇത് ചിക്കൻ കറിയും വെക്കും നാടൻ ചിക്കന് മറ്റേ ഫാം ചിക്കനെല്ലാം ഇത് ഈ ടൈമില് വെക്കലുണ്ട് പക്ഷെ അത് ഇപ്പോളത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല നാടൻ ചിക്കനെ ഞങ്ങള് പഴയ ആൾക്കാർ ഇതേ സെയിം സിസ്റ്റത്തില് വെക്കും നല്ല തേങ്ങാ അടുപ്പിലിങ്ങനെ ചുവപ്പ് കളറ് വരുന്നത് വരെ അടുപ്പിലിങ്ങനെ വെക്കും പിന്നെ മുളകും കൊത്തമ്പരീയും പിന്നെ ഇപ്പോളത്തെ പോലെ അങ്ങനെ ഉലുവ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇടലില്ല മല്ലിയില അതൊന്നും ഇടലില്ല ഇതുപോലത്തെ സെയിം കുറച്ച് മുളക് അധികം ഇടും ചിക്കനായത് കൊണ്ട് കുറച്ച് മുളകെല്ലാം അധികം ഇട്ടിട്ട് നല്ല പോലെ എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കും എണ്ണയിൽ വറുത്തെടുത്തിട്ട് അത് പിന്നെ അത് അതും ഞങ്ങൾ ഇങ്ങനെ തന്നെ എന്താക്കും അരപ്പെടുത്തിട്ട് തിളക്കാൻ വെക്കും ആ തിളക്കാൻ വെക്കും പിന്നെ ഇപ്പോൾ സാധാരണക്കാരെല്ലാം കറി വെക്കുമ്പോൾ എരിവ് കുറവായിരിക്കും എരിവ് ആർക്കും ഇഷ്ടമില്ല അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ പുറമെ പുറമെ ഫങ്ങ്ഷന് പോയാലോ ഇപ്പോൾ പോയാലോ കിട്ടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര കുറെ എരിവില്ലാത്ത കറി അതില് മല്ലിയില ചേർക്കും ഇങ്ങനെ എന്തല്ലോം ഇട്ടിട്ട് വെറൈറ്റി ആക്കിയിട്ട് എരിവില്ലാത്തൊരു കറിയാണ് എനിക്ക് കിട്ടുന്നത് പക്ഷെ നമ്മള് ഫങ്ങ്ഷന് പോയിക്കഴിഞ്ഞാല് എന്തായാലും എരിവുണ്ടാവും അത് എരിവ് ഓവർ ഇട്ടിട്ട് തന്നെ എന്ത് ആക്കല് അപ്പോൾ നല്ലോര് ചിക്കൻ കറിയായാൽ അങ്ങനെ അര അരപ്പെല്ലാം അരപ്പ് തന്നെ പറയും ഞങ്ങൾ ആക്കിയിട്ട് തേങ്ങാ മുളകെല്ലാം കൊത്തമ്പരീ നല്ലോണം ഇടും മുളക് നല്ലോണം ഇടും ഇതെല്ലം ഇട്ടിട്ട് അരച്ചിട്ട് പിന്നെ അതു അങ്ങനെ അടുപ്പിലെല്ലാം വെക്കണം നല്ല ടേസ്റ്റ് അടുപ്പിൽ തന്നെ അരപ്പ് അങ്ങനെ തിളയ്ക്കുമ്പം നീരൊളിയിടും ചിക്കനും ഇട്ടിട്ട് നല്ല പിന്നെ ഇപ്പോൾ ആ പൂവങ്കോഴി എല്ലാം ആയെങ്കില് ഏകദേശം ഒരു മണിക്കൂറ് എല്ലാം വേണം വേകാനും പിന്നെ ഇപ്പോളത്തെ അവർക്കെല്ലാം ഇപ്പം എന്തായാലും കുക്കറില് വെക്കാലോ കുക്കറില് വെച്ചിട്ടാകുമ്പഴേക്ക് പിന്നെ പെട്ടന്ന് വേവി വെന്ത് കിട്ടും പക്ഷെ കുക്കറില് വെക്കുമ്പം അതൊരു എന്തായാലും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ കഴിച്ചിട്ട് ഇത് ശീലമുണ്ടായിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും പിന്നെ കുക്കറില് വെച്ച ചിക്കൻ കറിയോ എന്ത് കറിയായാലും അതൊര് വ്യത്യാസമായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വെക്കുമ്പോൾ എന്തായാലുംചിക്കനും ഇങ്ങനെ തോരക്കറിയെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ അടു അടുപ്പിൽ തന്നെ തീയാക്കിയിട്ട് നല്ല വിറക് വേണം എന്തല്ലോ വിറക് വെച്ചാല് അതില് പാചകത്തില് വ്യത്യാസം വരുന്നുണ്ട് നല്ല വിറക് വച്ചിട്ട് കത്തിക്കുമ്പത്തേക്ക് അതിൽ നല്ല കറിക്ക് നല്ല ടേസ്റ്റുണ്ടാവും അപ്പം ചിക്കന് അങ്ങനെ തന്നെ അതുപോലെ തളിച്ചതിന് ശേഷം ഞങ്ങൾ എന്താക്കും ഈ ഒരു ഉള്ളി ഇടും നീരുള്ളി മുറിച്ചിടും ചിക്കനും ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കും ഒരു മണിക്കൂറ് ഏകദേശം ഒരു മണിക്കൂറ് ഞങ്ങൾ വേവിക്കും എന്തായാലും ആ വേവിച്ചതിന് ശേഷം പിന്നെ നേരത്തെ ഇത് തോരക്കറിക്ക് ഇത് പിന്നെ വറുത്തിടുന്നില്ലേ അതേ ടൈപ്പിൽ തന്നെ വറുത്തിടും അങ്ങനെ നീരുള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ വെളുത്തുള്ളി ജീരകം ഇടും പിന്നെ വെളുത്തുള്ളിയും ജീരകയും നല്ല പോലെ അത് ചതച്ചിട്ട് സൈഡില് വെക്കും വെളുത്തുള്ളി മുറിച്ചിട്ട് ഈ എണ്ണ കുറച്ച് ചൂടാകുമ്പം ഇടും അതു അങ്ങനെ പിന്നെ നല്ലോണമിങ്ങനെ കത്തിച്ചിട്ട് നല്ലോണം തീയുണ്ടാക്കി ഇത് ഗ്യാസിലായാലും അടുപ്പിലായാലും വെച്ചു കൂടാ ലൈറ്റായിട്ട് കത്തുന്ന അതിൽ വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും പിന്നെ പിന്നെ ചൂടാക്കും ആ ചൂടാക്കിയതിന് ശേഷം പിന്നെ ഈ കറിക്ക് ഒഴിച്ച് വെക്കും ഒഴിച്ച് കൊടുക്കും അത് കൊടുത്തിട്ട് നല്ല മൂടി വച്ചിട്ടാകുമ്പം തന്നെ കോഴിക്കറി ഞങ്ങളുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഇവിടെ തിളക്കുമ്പം തന്നെ അവിടെ വായില് വെള്ളം ഇങ്ങനെ വരും അത്രയ്ക്ക് ടേസ്റ്റ് ആ അതിങ്ങനെ മ മണമുണ്ടാകും എന്തായാലും പിന്നെ നാടൻ ചിക്കൻ വെക്കുമ്പോൾ കേക്കണ്ട എന്തായാലും നല്ല വെറൈറ്റി സ്മെൽ അടിക്കുവ പുറത്തേക്ക് ഇങ്ങനെ ആ അതുകൊണ്ട് എന്തായാലും ആ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ തോന്നും ഇന്ന് വീട്ടില് ചിക്കൻ കറി എന്ന് പറയാന് പറ്റും ഇപ്പൊൾ ചിക്കനെ എത്ര വെറൈറ്റിയിൽ വച്ചാലവര് മണമൊന്നുമുണ്ടാവലില്ല ആന്ന് പറഞ്ഞങ്കിൽ എത്ര വെറൈറ്റി ആക്കിയിട്ട് വച്ചാലും അതൊര് എന്നാ ചിക്കൻ കറി എന്നെന്ന് തിന്നുന്നു എന്നല്ലാണ്ട് വലിയൊരു ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല വെറുതെ ഇങ്ങനെ ചിക്കനെ വെക്കുന്നു ഇങ്ങനെ കഴിക്കുന്നു എന്ന് മാത്രം പക്ഷെ ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് എരിവ് കുറച്ചധികം ഉണ്ടാകും എന്തായാലും നമ്മൾ വെക്കുന്ന ചിക്കൻ കറിക്ക് നല്ല എരിവ് ഉണ്ടാകും അപ്പോൾ നല്ലൊരു കറിയായിട്ട് മാറുന്നത് അങ്ങനെ വെക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഫേവറിറ്റ് എന്ന് പറഞ്ഞത് പോലെ തന്നെ ഇത് ഒരു തോരക്കറിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ സാമ്പാറ് പറഞ്ഞാൽ അത്ര വലിയ വെറൈറ്റിയിലൊന്നും വെക്കുന്നത് ഇല്ല സാധാരണ പോലെ തന്നെ കറി വെക്കും പിന്നതുപോലെ ഇല്ലെ നെയ്യ് പത്തല് അത് ഞങ്ങളുടെ ഒരു ഫേവറിറ്റ് ഫുഡ് അത് ഞങ്ങൾ വെക്കും എങ്ങനാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് തുണിയിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടെല്ലാം ഇടുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ പ്രായമുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതാണ് അപ്പം അപ്പ തേങ്ങയുടെ തന്നെ ആണ് അതുപോലെ തന്നെ നല്ല അരി തന്നെ ആകണം അതെല്ലാം അതിൽ തന്നെ ആക്കിയിട്ട് കയ്യിലെല്ലാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് കാണാൻ നല്ല ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാരെല്ലാം തന്നെ ആ ഇപ്പം ഈ ചിക്കൻ കറി ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒര് പിന്നെ പൊള്ളപ്പം എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ പൊള്ളപ്പം എന്ന് പറയും അപ്പം ആ പൊള്ളപ്പം കോഴിക്കറി പറഞ്ഞെങ്കില് ആ ബെസ്റ്റ് വേറെ അതിനപ്പുറം വിരുന്നുകാര് വന്നെങ്കില് വേറൊരു ഫുഡും ഇല്ല കോഴിക്കറി ഉള്ള ഉള്ളപ്പോന്ന് പറഞ്ഞെങ്കില് ഭയങ്കരം അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരുണ്ടാവുക കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വരുന്നില്ലേ അങ്ങനെ ഉള്ളവർക്കെല്ലാം എന്താക്കും ഈ ഇത് കോഴി കറി ഉള്ളപ്പോൾ അങ്ങനെ പറയും അത് അല്ലെങ്കിൽ ഒറോട്ടി കോഴി കറിയും ഒറോട്ടിയാക്കും അതു അങ്ങനെ തുണിയിലെല്ലാം പറ്റിച്ചത് അത്രയും ഒന്ന് നമുക്ക് വെറൈറ്റി ആക്കാനൊന്നും അറിയുന്നില്ല പക്ഷേ ഞങ്ങളുടെ ഫങ്ക്ഷൻ അന്ന് ഞങ്ങള് വിരുന്നെല്ലാം ഗ്രാന്റ് ആകണമെങ്കിൽ അങ്ങനെ പറയുന്നത് കോഴിക്കറി ഒറോട്ടി കോഴിക്കറി പൊള്ളപ്പം ഇങ്ങനെ ആക്കിയെങ്കിൽ മാത്രം അതൊര് വെറൈറ്റി ഫുഡ് ആയിട്ട് മാറുന്നത് അപ്പോൾ ഇത് രണ്ട് ഐറ്റവും ഞങ്ങള് ഫേവറിറ്റ് എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏകദേശം എന്ന് വെച്ചാൽ എരിവ് കുറച്ച് കുറവ് കഴിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമാകും അപ്പോൾ അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും കഴിക്കാതെ ഇരിക്കില്ല ആ കഴിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കണ്ണില് മൂക്കില് വെള്ളം വരുന്നുണ്ടാകും അത് പ്രശ്നമില്ല എന്നെങ്കിൽ ടേസ്റ്റ് ഒന്ന് ഭയങ്കരമായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളവര് അങ്ങനെ ഉള്ള രണ്ടും ഒരു ഫുഡ് ഞങ്ങളൊര് ഫേവറേറ്റ് എന്ന് തന്നെ പറയാം ഞങ്ങളുടെ സമുദായത്തിലെല്ലാം ഞങ്ങളെന്ത് ഫങ്ക്ഷന് ഉണ്ടെങ്കിലും എരിവുണ്ടാവും പിന്നെ ഈ പോലെ തന്നെ പാചകം ചെയ്യും നമ്മൾ അത് വെറൈറ്റിയാക്കിട്ടൊന്ന് ഞങ്ങളുടെ ഫങ്ക്ഷന് ന്റെ അന്ന് കൊടുക്കുന്നത് വളരെ കുറവ് അതുകൊണ്ടെന്തായാലും ഇത് രണ്ടും ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് പോയിട്ട് ചോദിച്ചാലും ഞങ്ങള് ഈ ഫുഡിനെ കുറിച്ചിട്ടേ പറയാൻ ഉണ്ടാകു